ചിത്രകല എന്ന് പറയുന്നത് വളരെ പ്രാചീന കാലം മുതല് തന്നെ നമ്മുടെ കേരളത്തിലല്ലെങ്കിൽ ഇൻഡ്യയില് പ്രചാരത്തിലുള്ള ഒരു ഒരു കലയാണ് അത് ആദ്യമായിട്ട് തുടങ്ങുന്ന ആള് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് വളരെ ബേസിക്കായിട്ട് അവര് വരച്ചു തുടങ്ങും വളരെ വളരെ ബേസിക്കായിട്ട് വരകള് പിന്നെ പയ്യെ പയ്യെ പൂക്കൾ മരങ്ങൾ അങ്ങനെയങ്ങനെ വളരെ താഴെ നിലയിൽ നിന്ന് വേണം തുടങ്ങി തുടങ്ങി വരാൻ ആദ്യം പെൻസിൽ ഉപയോഗിച്ച് വരകൾ ഇടാൻ പഠിക്കുക പിന്നെ അത് മാറി പേന വിവിധ നിറത്തിലുള്ള പേനകൾ ഉപയോഗിക്കാം വിവിധ നിറത്തിലുള്ള മെഴുകുകൾ ഉപയോഗിക്കാം അങ്ങനെ ഉയർന്നുയർന്നുയർന്ന് പല പല സ്റ്റേജുകളായിട്ടാണ് അവ മുകളിലേക്ക് എത്തുന്നത് അതിൻ്റെ വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് വിചാരിച്ചാൽ നമ്മള് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് വളരെ നല്ല പോട്രെയ്റ്റുകള് വരക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ വരുമ്പോഴാണ് വീഴ്ചകൾ വരുന്നത് അപ്പം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ തലച്ചോറിലുള്ള നമ്മടെ കഴിവുകൾ അല്ലെങ്കിൽ തലച്ചോറിൽ നമ്മുടെ കൈയിലുള്ള ചിന്തകൾ എങ്ങനെ ഒരു ചിത്രമായിട്ട് പകർത്താം എന്നുള്ളത് നമുക്ക് മനസിലാക്കാൻ പറ്റാതെവരും അതിന് വളരെ ഒരുപാട് വർഷത്തെ കഠിന അധ്വാനവും പരിശീലനവും ആവശ്യമാണ് അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്നൊരു ചിത്രകാരനാകാം എന്ന് വിചാരിച്ച് പഠിക്കാനായിട്ട് പോകാം അങ്ങനെ ഒരുപാട് വർഷത്തെ ആ പരിശീലനം ആവശ്യമാണ് ഒരു നല്ല കലാകാരനാകാൻ എത്രത്തോളം പരിശീലനം ആവശ്യമാണ് എന്നുവെച്ചാൽ ഏതൊരു കലാകാരനും ഒരു കല പഠിച്ച് തീരുന്നില്ല നമ്മുടെ അത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഒരു ബോധം എല്ലാവർക്കും മനസ്സിൽ വേണം ഒരു പൂർണമായ കലാകാരനെന്നു പറഞ്ഞാൽ അത് മൊത്തമായി പഠിച്ചു കഴിഞ്ഞ ഒരാളല്ല എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് എന്നുള്ളത് എപ്പോഴും താനൊരു വിദ്യാർത്ഥി ആണെന്നുള്ളൊരു കാര്യം എപ്പോഴും ഓർക്കണം കഴിവുകൾ അല്ലെങ്കിൽ തലച്ചോറിൽ നമ്മുടെ കൈയിലുള്ള ചിന്തകൾ എങ്ങനെ ഒരു ചിത്രമായിട്ട് പകർത്താം എന്നുള്ളത് നമുക്ക് മനസിലാക്കാൻ പറ്റാതെവരും അതിന് വളരെ ഒരുപാട് വർഷത്തെ കഠിന അധ്വാനവും പരിശീലനവും ആവശ്യമാണ്